സംഗീതം എന്നത് ഒരു കുഞ്ഞിനെ പരിപാലിക്കേണ്ടതു പോലെയാണ് നമ്മൾ സംഗീതത്തെ പരിപാലിക്കേണ്ടത് കാരണം സംഗീതം നമ്മൾ എപ്പോഴും നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഒരു കുഞ്ഞു കുട്ടിയെയാണ് കുഞ്ഞു കുട്ടിയെ എങ്ങനെയാണോ നമ്മൾ പരിപാലിക്കുന്നത് അതു പോലെയാണ് നമ്മൾ സംഗീതത്തെ പരിപാലിക്കുന്നത് കാരണം ഇവ വളരെയധികം സംഗീതത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അവർ തീർച്ചയായിട്ടും എന്തായിരുന്നു സംഗീതത്തെ എന്താണ് വളരെ നല്ല രീതിയിലാണ് പരിപാലിക്കുന്നത് അത് നമുക്കു കാണാൻ സാധിക്കുന്നു അതിപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നു തണുത്ത ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല കാരണം അത് തൊണ്ടയ്ക്ക് പ്രശ്നമാകും തൊണ്ടയ്ക്കു പ്രശ്നം ആയി കഴിഞ്ഞാൽ അതു സംഗീതത്തെ ബാധിക്കും അതു പോലെ തന്നെ നമ്മൾ സംഗീതത്തെ മെച്ചപ്പെടുത്താൻ ഇപ്പോൾ ടെക്നോളോജി പരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നമുക്ക് എന്താ നമ്മൾക്കു നോക്കി കഴിഞ്ഞാൽ നമുക്കു കാണാൻ സാധിക്കുന്നു അപ്പം ആ രീതിക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സംഗീതത്തെ സംരക്ഷിച്ച് അതിനെ പരിപാലിച്ച് നമുക്ക് മുന്നോട്ടു കൊണ്ടു പോകാൻ സാധിക്കും കാരണം സംഗീതം എന്നു പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആ ബുദ്ധിമുട്ടുകൾ അതി ജീവിച്ചാൽ മാത്രമേ സംഗീതത്തെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടു പോകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മസാല കൂടിയ ഭക്ഷണം ഒക്കെ നമ്മൾ ഒഴിവാക്കണം അതു തീർച്ചയായിട്ടും നമ്മുടെ സംഗീതത്തെയും നമ്മുടെ സ്വരത്തെയും ബാധിക്കും പ്രത്യേകിച്ച് തണുത്ത ഭക്ഷണങ്ങളാണ് നമ്മൾ ഉപയോ നിരോധിക്കേണ്ടത് നിരോധിക്കേണ്ടതല്ല മാറ്റിനിർത്തേണ്ടത് പ്രത്യേകിച്ച് തണുത്ത വെള്ളം ഐസ് ക്രീം മറ്റ് തണുത്ത പാനീയങ്ങൾ തണുത്ത ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതലും ചൂട് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ അതെല്ലാം കൂടുതലും കഴിച്ച് ശീലമാക്കുക അതൊക്കെയാണ് സംഗീതത്തെ അങ്ങനെ പല രീതിയിലും നമുക്ക് പരിപാലിക്കാൻ സാധിക്കുന്നു